കേരളം എന്നു പറയുന്ന സംസ്ഥാനത്തിൽ മലയാളഭാഷയുടെ ഒരു പങ്കെന്ന് പറയുന്നത് അത് ഒഴിച്ചുകൂടാനാകാത്ത ഒന്ന് തന്നെയാണ് കാരണം ദൈവത്തിൻ്റെ സ്വന്തം നാടാണ് കേരളം എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത് അപ്പോൾ അതുപോലെത്തന്നെ നമുക്ക് ഭാഷയ്ക്കും വളരെ അധികം പ്രാധാന്യം ഈ സംസ്ഥാനത്തിനുണ്ട് നമ്മുടെ നമ്മൾ കൂടുതലും മലയാളഭാഷ കൈകാര്യം ചെയ്യുന്ന ആൾക്കാരാണ് പിന്നീടാണ് നമ്മുടെ പഠനങ്ങളുടെ എല്ലാം ഭാഗമായിട്ടാണ് നമ്മൾ ഇപ്പോൾ ഇംഗ്ലീഷാണെങ്കിലും ഹിന്ദി ആണെങ്കിലും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഭാഷകൾ നമ്മൾ പഠിക്കുന്നതും അത് സംസാരിക്കാനും അല്ലെങ്കിൽ അത് ഉപയോഗിക്കാനും നമ്മൾ ശ്രമിക്കുന്നത് മലയാളം എത്രയാണെന്ന് പറഞ്ഞാലും നമുക്ക് ഒഴിച്ചുകൂടാനാകാത്ത ഒരു ഭാഷ തന്നെയാണ് മലയാളം എന്ന് പറയുന്നത് മലയാളമില്ലാണ്ട് നമുക്ക് ഇപ്പം നമ്മൾ വേറെ ഏതെങ്കിലും രാജ്യത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലങ്ങളിലോ ചെന്ന് കഴിഞ്ഞാൽ നമുക്കൊരിക്കലും മലയാളം യൂസ് ചെയ്യാനും പറ്റത്തില്ല എന്നാലും കേരളത്തെ സംബന്ധിച്ചിടത്തോളം മലയാളം ഒഴിച്ചുകൂടാനാകാത്ത ഒരു ഭാഷ തന്നെയാണ് നമ്മുടെ സംസ്കാരത്തിൻ്റെയും നമ്മളെ സംസ്കാരം മുഴുവനായും മലയാളഭാഷയെ അതിന്റെയൊരു പങ്ക് വളരെ വലുത് തന്നെയാണ് നമുക്കൊരിക്കലും മലയാളഭാഷ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണിപ്പോൾ വേറെ പുറത്തുള്ള രാജ്യങ്ങളിൽ നിന്നുള്ളവരാണെങ്കിലും വന്നുകഴിഞ്ഞാൽ മലയാളം പഠിക്കാനായിട്ട് ശ്രമിക്കുന്നവരാണിപ്പം കൂടുതലും അല്ലെങ്കിൽ ഇപ്പം സോഷ്യൽ മീഡിയകളിലൊക്കെ ആണെങ്കിലും നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം വളരെ കുറച്ചെങ്കിലും ചെറിയ രീതിയിലെങ്കിലും മലയാളഭാഷ സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന പല ആൾക്കാരും ഇല്ലെങ്കിലത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന പല ആൾക്കാരും ഇന്ന് ഉണ്ട്